നമ്മുടെ പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം തന്നെയാണ് പക്ഷെ അതിൻ്റെ കൂടെ ഉപഭാഷയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഹിന്ദിക്കാർ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അതായത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിക്കൊക്കെ ഹിന്ദിക്കാർ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരുടെ അടുത്ത് ഹിന്ദിക്കാരോടൊക്കെ സംസാരിക്കാൻ ചിലപ്പോൾ നമ്മൾ ഹിന്ദിയാണ് ഉപയോഗിച്ചി ഉപ ഉപയോഗിക്കും ചിലപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പിന്നെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് ഇപ്പോഴെന്ന് ഇപ്പോൾ ഒക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാനെല്ലാവരും അപമാനിക്കുന്നൊരു സമയമാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയില്ല അതായത് കൂടുതലായിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അത് ജോലിയാ ജോലി സ്ഥലത്തൊക്കെ നമുക്ക് നല്ല ഉപകാരം ആണ് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നത് പിന്നെ നമുക്ക് എപ്പം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റെർവ്യൂ എല്ലാം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ സ്കില്ലൊക്കെ നല്ലവണ്ണം ഉണ്ടോയെന്നൊക്കെയാണ് നോക്കുക അല്ലാണ്ട് നമുക്ക് ഇത് മലയാളം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യമല്ല അവർ നോക്കുക അപ്പം അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഒരിക്കൽ നമ്മൾ അതായത് നമ്മൾ മലയാളം സംസാരിക്കുന്നതിൽ നമ്മളെ അപമാനിക്കാൻ പാടില്ല നമ്മളത് പിന്നെ മലയാളം സംസാരിക്കുമ്പോൾ മലയാളം തന്നെ സംസാരിക്കുക നമുക്ക് അത്യാവശ്യഘട്ടം വരുമ്പോൾ മാത്രം നമ്മൾ ഇംഗ്ലീഷിലോക്കെ സംസാരിക്കാൻ ശ്രമിക്കുക